ഞങ്ങളുടെ തോട്ടത്തിൽ വാഴ ഉണ്ട് ക കവുങ്ങുണ്ട് തെങ്ങുണ്ട് പൂന്തോട്ടകളുണ്ട് പൂന്തോട്ടങ്ങൾ പറഞ്ഞാൽ മുല്ലപ്പൂണ്ട് സേവന്തിയുണ്ട് ചെമ്പരത്തിയുണ്ട് പിന്നെ ഇങ്ങനെ പലതരത്തിൻ്റെ പൂക്കളും ഉണ്ട് എങ്കിൽ ചെടി വാ വാഴ ചെടിയെല്ലാം വാങ്ങീട്ടും നട്ടതുണ്ട് നമ്മുടെ അടുത്ത അയൽക്കാര്ന്ന് വാങ്ങിച്ചിട്ട് വെച്ച കദളിപ്പഴം വാ വാഴ നേന്ത്രപ്പഴം വാഴ അങ്ങനെ പലതും നമ്മൾ കറി കറീൻ്റെ കായി അങ്ങനെ പലതും ചെടികൾ നട്ടിട്ട് കൃഷി ഉണ്ടാക്കീട്ടിണ്ട് പൂത്തോട്ടങ്ങൾ പൂത്തോട്ടത്തിൽ നമ്മൾ മുല്ലപ്പൂ വാങ്ങീതുമുണ്ട് വീട്ടിലന്നെ നട്ടിട്ട് ഉണ്ടാക്കീതുമുണ്ട് വളർത്തീട്ട് പിന്നെ അടുത്തന്നെ വേറെ ആൾക്കാരെ കൊണ്ട് എട്ത്തിട്ട് സേവന്തി മുല്ലപ്പൂ പിന്നെ ചെമ്പരത്തി ചെമ്പരത്തീൽ പത്ത് പതിനഞ്ച് തരം കളറിൻ്റെ ചെമ്പരത്തിയുണ്ട് ചെമ്പരത്തി നമ്മൾ വാങ്ങീതുമുണ്ട് പണം കൊടുത്തിട്ട് വാങ്ങിയതുമുണ്ട് അല്ലാതെ നമ്മളന്നെ അടുത്ത വീട്ടീന്നെല്ലാം കണ്ട കണ്ട എവടെങ്കിലും സദ്യക്ക് പോയാലും എവിടെങ്കിലും കല്യാണ ഫംഗ്ഷന് പോയാലും ഇങ്ങനെ പോയപ്പോൾ കണ്ട നല്ല കളറ് കണ്ടങ്ങ് നമ്മൾ വാങ്ങിച്ചിട്ട് അവരീന്ന് വാങ്ങീട്ട് കൊടുക്കും കൊണ്ടു വന്നിട്ട് നടും പക്ഷേ പിന്നീട് അതിന് നല്ല വെള്ളമൊഴിക്കും ചാരങ്ങൾ കുറച്ച് ഇടും അതിനെ നന്നാക്കീട്ട് എടുക്കും പിന്നെ മഴ വരുമ്പോൾ അതിൻ്റെ തല ഒക്കെ കട്ടാക്കീട്ട് അതിന് വേണ്ടിയ അവർക്ക് അതിനെ കട്ടാക്കിയത് ആർക്കെങ്കിലും വേണ്ടിയവർക്ക് കൊടുക്കും പിന്നെ പൂക്കൾ പൂ മുമ്പെയാണെങ്കിൽ നമ്മൾ ചെറുപ്പകാലത്തിലായെങ്കിൽ വിറ്റു വിക്കും പൂവെടുക്കും ഇങ്ങനത്തെ വേറെ പൂവുണ്ട് ഒരു പൂ വേറെയുണ്ട് അത് രണ്ടു മൂന്നു കളറിൽ മൂന്ന് കളറിലുണ്ട് അതിനെല്ലാം വിറ്റിട്ടും നമ്മൾ ചെറുപ്പത്തിൽ പണമാക്കിയതുണ്ട് പൂക്കളെ വിറ്റിറ്റ് റോസാ ഉണ്ട് ഇപ്പോൾ അതിനൊന്നും പോകുന്നില്ല നമ്മൾ ഷോന് വേണ്ടീറ്റ് വീട്ടിൻ്റെ മുമ്പിൽ നടും പിന്നെ അതിന് മയക്കാലം അധികം ചെടി വളർന്നു വരുമ്പം കട്ട് ചെയ്യും പക്ഷേ അതിന് ആട്ടിൻ്റെ ആട്ടുപിട്ട വിണ്ണൂറ് ഇതെല്ലാം വളാക്കിയിട്ട് അതിൻ്റെ മോളിലോട്ടിട്ടു കൊടുക്കും അത് നന്നായി തടിച്ച് വരും പിന്നെ അതിന് പൂക്കൾ വരും അതിൽ ഇഷ്ടംപോലെ പിന്നെ എ എല്ലം ചെടി നന്നായിട്ട് വളർന്ന് വരുമ്പോൾ അതിൻ്റെ തല പിന്നെ കട്ട് ചെയ്യാണ് പിന്നെ അതിന് വളം ഇട്ടു കൊടുക്കു വെള്ളം ഒഴിക്കണു ഇഷ്ടം പോലെ പൂവായിക്കോളും മണ്ണ് നന്നായിരിക്കണം മണ്ണിലെ കല്ലെല്ലാം എടുക്കണം മണ്ണ് മാത്രായിരിക്കണം പിന്നെ വായച്ചെടി ആയാലും അത് രണ്ട് പ്രാവശ്യം കൊല കാഴ്ച്ചപ്പോൾ അതിനെ എട്ത്തിറ്റ് കളയണം അതിൻ്റെ മൊട എല്ലാം കളച്ചെടുത്ത് അതിനെ നല്ല അകത്ത്ണ്ടാക്കിട്ട് പിന്നെ പുതിയ ചെടി അതിൽ വെച്ച് കൂടയിൽ വെച്ച് കൊണ്ട് കുഴിച്ചിറ്റ് കുഴിയിൽ വെച്ച് കൊടുക്കണം പിന്നെ അതുമൊരു നല്ലൊരു കാണാന് ഭംഗിയായിട്ട് വരും തടിച്ച് വരും വെണ്ണൂറും ആട്ടിൻ്റെ ഈ ആട്ട് വളം ഇങ്ങനെ ഇട്ടിട്ട് ചാരവും എല്ലാം ഇട്ടിട്ട് നല്ലപോലെ അതിന് ഇട്ടു കൊടുത്ത് പശുൻ്റേം ചാണകം ഒണക്ക ചാണകം ഇതെല്ലാം ഇട്ടു കൊടുത്ത് നല്ല കൃഷി നല്ലായിറ്റ് വരും അങ്ങന കാണാന് കൃഷി ഉണ്ട് ച പൂച്ചെടികളുണ്ട് ആവശ്യത്തിന് പിന്നെ നമുക്ക് തിന്നാനായിട്ട് ചക്ക പ്ലാവ് ഇങ്ങനെ പ്ലാവിൻ്റെ മരം ഇങ്ങനെയുണ്ട് അതിനുമിങ്ങനെ അതും നന്നായിട്ട് നോക്കണം അതിനും അത് തന്നെ തന്നെ താനേ ഉണ്ടായിക്കോളും ചക്ക ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും പിന്നെ പൂച്ചെടീൽ പറഞ്ഞാൽ ഒന്ന് നമുക്ക് കാണാനും ഒരു ഷോനായിട്ടും വീട്ടിൻ്റെ മുമ്പിൽ പിന്നെ നമുക്ക് വേണോന്ന് പറഞ്ഞാൽ പൈസ പണം പണം ഉണ്ടാക്കണോന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ വിറ്റിറ്റ് പണം ഉണ്ടാക്കാം അങ്ങനെയിണ്ടാക്കാം അതിനാകുമ്പോൾ കുറച്ച് പാടുണ്ട് ചിലപ്പോൾ രോഗങ്ങൾ വരും ചെടികളിൽ അങ്ങനെ ചില ചെടികളെല്ലാം നശിനീട്ട് പോവും അതിന് അതിനു വേണ്ടിയ മരുന്നൊക്ക കൊണ്ടുവരണോ അതിന് മരുന്നിട്ടു കൊടുക്കണം അപ്പോൾ പൊതു വരുന്നേന് അങ്ങനെ ചെടീനേ നന്നായിറ്റ് നോക്കീറ്റ് വളർത്തിയെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പണോണ്ടാക്കാം കാണുന്നേന് അലങ്കാരോം ചെടിയായിട്ടും ഉപയോഗിക്കാം വീട്ടിൽ മുമ്പിൽ പിന്നെ എല്ലാവരും ഇന്നത് എല്ലാ ആഗ്രഹിക്കുന്ന പോലെ അലങ്കാര വസ്തുവായിട്ട് പൂ ചെടീനെ അല്ലേ അതുകൊണ്ട് നമുക്ക് എല്ലാ എല്ലാ എപ്പോഴും അതിൻ്റോടപ്പം നല്ല ഒരു സ്നേഹം അതിനെ കാണുന്ന ആ ഭംഗിയും കാണാന് പൂവായിറ്റ് കാണുമ്പോളാണ് ഉള്ള ഭംഗി നല്ലൊരു മനസ്സിക്ക് ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഒപ്പം എല്ലാ നമ്മളിങ്ങനെ കൂടി എപ്പോളും വീട്ടു പണിയായി കഴിഞ്ഞാൽ പോരാ നമ്മൾ ചെടിൻ്റൊപ്പം അതിനെ നോക്കുന്നതും അതിനെ ഇതിൻ്റെ പിന്നാലെ പോകുന്നതും നമുക്ക് സമയമിങ്ങനെ പോകും അപ്പോൾ നമുക്ക് ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല ആരോഗ്യത്തിന് യാതൊരു രോഗവും വരുന്നില്ല വെറുതേ കിടക്കുന്ന ഇരിക്കുന്ന നേരത്ത് ഇതെല്ലാം പിന്നെ ലേസം ലേസം വെള്ളം ഒഴിക്കുന്നു അതിനുവേണ്ടി ചാരങ്ങളോ അതിനു വേണ്ടി കൃഷിക്ക് ആയിട്ട് ഉപയോഗിക്കുന്നതോ പൂ ചെടീനെ നോക്കുന്നതോ ഇതെല്ലാം ഞമ്മളെ ആരോഗ്യത്തിന് നല്ലതെന്ന് തോന്നുന്നുണ്ട് തുളസീ അതിന്റെ അപ്പുറം നട്ടു കൊടുക്കൂ തുളസീൻ്റെ മണം വീട്ടിൻ്റകത്ത് വരും അതിൻ്റെ ഇലകൾ നിങ്ങൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് വെള്ളം തെളപ്പിച്ചിട്ട് കുടിക്കു പല ഗുണങ്ങളും നമുക്ക് ഈ ചെടിയിൽ കിട്ടുന്നുണ്ട് പിന്നെ ഒരു നട്ട് നട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പൂവിൻ്റെ ഇല മ ഒരു സുഗന്ധമായ ഒരു വീടിൻ്റെ മുമ്പിൽ അലങ്കാരവായിട്ടും ആ ഒരു മണത്തിന് മണത്തിലുള്ള പൂക്കളുണ്ട് മണമില്ലാതെയുള്ള പൂക്കളുണ്ട് പൂക്കൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് വേണ്ടീട്ട് കൊടുക്കും എല്ലാവരും വെളുപ്പിന് നാലുമണിക്ക് വന്നിട്ട് ചെടിനെല്ലാം പൂവെല്ലാം പറിച്ച് കൊണ്ടു പോവും അമ്പലത്തിൽ ദേവനെ ഇഷ്ടമായത് പൂവാണ് അതുകൊണ്ട് നമ്മൾ നട്ടിട്ട് അതിനെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഉണ്ടാക്കീട്ട് ആ പൂ പല ആൾക്കാരും പാ പറിച്ചിട്ടും കൊണ്ടുപോകും ഞങ്ങളും പറിച്ചിറ്റ് നമ്മളെ വീട്ടിലുള്ള ദേവന് ഇഷ്ട ദേവന് നമ്മൾ വെച്ചു കൊടുക്കും അതുപോലെ അമ്പലങ്ങൾക്കും നമ്മൾ കൊണ്ടു പോവും പൂന പൂന തൊട്ടിട്ട് നല്ലൊരു ക ഇതാണ് പറയാനുള്ളതെന്ന കാര്യം പക്ഷേ പൂ നമക്ക് ഉണ്ടാക്കിയയിൽ ഒരു മ സന്തോഷത്തോടെ നമുക്ക് പൂവിനെ കാണുമ്പോൾ പൂവിൻ്റെ ചെടിനേ നടുവിൽ നിൽക്കുമ്പോൾ നമ്മളെ മനസ്ക്ക് എന്തോ ഒരു സന്തോഷം വരുന്നു ആ ചെടി കുറച്ച് പൂക്കളും അതിൻ്റെ അലങ്കാരവും അതിനെ കാണുമ്പോഴും ആ ദേവന് പറിച്ചിട്ട് വട്ടയിൽ തട്ടയിൽ വെച്ചിറ്റ് നല്ല അലങ്കരിച്ച് കൊടുക്കുന്നതും പിന്നെ എന്തെങ്കിലും കാര്യം ഫംഗ്ഷന് കാര്യങ്ങളിണ്ടെങ്കിൽ വീട്ട്ക്ക് അലങ്കാരം ചെയ്യാൻ പൂക്കളെ കൊണ്ടു പോകും അങ്ങനെ പൂവിൽ പല ഇതും നമുക്ക് ഉണ്ട് പൂവിനെ പറ്റിയിട്ട് പറയാൻ പൂ ഒന്ന് നടന്നു കാണാനും മാത്രമല്ല എല്ലാത്തിനും നമുക്ക് കാണുമ്പോൾ മല്ലികപ്പൂ മല്ലികപ്പൂന്ന് പറഞ്ഞാൽ എന്തൊരു മണമായ പൂവാണ് ആ മുല്ലപ്പൂം ൻ്റെ മണം ഒരെണ്ണം ഉണ്ടെങ്കിൽ മതി അതുപോലെന്നെ മുലപ്പൂവ് പലതരത്തിലെ മുല്ലപ്പൂകളുണ്ട് ജാജിയുണ്ട് ഗുണ്ടു മ ദുണ്ടു മല്ലികാന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു ഉണ്ട പൂവാണ് അതിൽ പന്ത്രണ്ട് പതിനാറ് ഇതളുകൾ ഉണ്ട് അത് മണത്തിൻ്റെ മല്ലിക ആറെസള്ൻ്റെ മല്ലിക ഉണ്ട് എട്ടെസളിൻ്റെ മല്ലിക ഉണ്ട് അങ്ങനെ മല്ലികയിലുമുണ്ട് നമുക്ക് ഇഷ്ടം പോലെ പൂക്കളെ പറ്റിയിട്ട് എല്ലാം പോലെ റോസപ്പൂ ആയാലും റോസിൽ നല്ല സ്മെല്ലുള്ള റോസുണ്ട് സ്മെല്ലില്ലാത്ത റോസുണ്ട് അത് മുല്ലപ്പൂൻ്റെ സ്മെല്ല് വരില്ല മ ഇതിന് റോസിന് റോസാപ്പൂവിന് ചെമ്പരത്തി പൂവങ്ങനെ മണമില്ല ചെമ്പരത്തി പൂവ് ഇങ്ങനെ ഷോന് മാത്രം എല്ലാം കാണാന് കളറ് കളറായിട്ട് ഭംഗിയായിട്ട് അഞ്ചീസള്ണ്ട് അട്ടിയട്ടി ഇതളായിട്ടുള്ളതുണ്ടു ഒരു പത്രണ്ട് പതിനാല് തരത്തിൻ്റെത് ചെമ്പരത്തി എൻ്റെ വീട്ടിലന്നെ ഉണ്ട് എങ്കിലും എനിക്കതിന അതിനെ കണ്ടിട്ട് അതിനോടൊപ്പം അതിന് വെള്ളമൊഴിക്കുക സമയം തികയുന്നില്ല വീട്ടുജോലിയായിട്ട് പൂ ചെടിക്ക് വെള്ളമൊഴിക്കാനും പൂക്കളെപൂക്കളെ നോക്കാനും അതിൻറ്റോടപ്പം കഴിയാനും എന്തോ ഒരു സന്തോഷകരമായ ജീവിതമാണ് എനിക്കത് കാണുന്നത് പൂച്ചെടിയിൽ നമുക്ക് പൂമ്പോഴോ മൃഗപക്ഷികളും വേണം അലങ്കാര വസ്തുവായിട്ട് വീട്ടിൽ എല്ലാ വസ്തുക്കളും വേണം എന്നാലേ വീടിൻ്റെ ഒരു ഭംഗി ഉണ്ടാവു ഇത് എനിക്ക് ഇതിൽ വേറൊന്നും പറയാനില്ലതിന് കൂടുതൽ